ഹലോ മരിയാ ഓട്ടോ അല്ലേ മെറീനയാണേ അതെ അതെ ഓട്ടം പോവാനായിരുന്നേ എടത്ത്വ എടത്ത്വ പള്ളിയിൽ ഒരു രണ്ടരയൊക്കെ ആവുമ്പഴത്തേന് വരാൻ പറ്റുമോ ആ ആ എടത്ത്വ പള്ളിയിലെ ഞാന് ആ ഓക്കെ ആ ഞാന് പള്ളിയിൽനിന്ന് അവിടെ നിൽക്കും ഒരു കൊച്ചും കൂടെ ഞങ്ങൾ രണ്ട് പേര് ഉണ്ടേ ഒരു കൊച്ചുമോനാ ചേട്ടന് ഇങ്ങോട്ട് വരുമ്പഴത്തേക്കിന് കയറ്റിക്കൊണ്ടു വരുമോ ആ ആ അത് മൊത്തം ഒരു രണ്ടേകാൽ രണ്ടേ ഇരുപത് ഒക്കെ ആവുമ്പോൾ വന്നാൽ കാണുമായിരിക്കും ആ ആ ആ ആ ആ ആ ആ കുരിശടിയിൽനിന്ന് വന്ന് നിൽക്കാം ആ എന്നിട്ട് ആ പള്ളിയിൽ പോകണം ആക്കിയാൽ മതി ആ നിൽക്കാം ആ ഇല്ല ഞങ്ങൾ രണ്ട് പേരേ ഉള്ളൂ ആ ആ ആ മാ ആ ആ ആ ആ ആ ആ മതി മതി വേറെ ഓട്ടോ അയച്ചാൽ മതി ചേട്ടന് പറ്റില്ലെങ്കിൽ വേറെ ഓട്ടോ വിട്ടാൽ മതി ആ ആ ആ ആ അതെ അതെ അതേ ഈ കോൾനീ ഈ നമ്പറില് കോണ്ടാക്റ്റ് ചെയ്താൽ മതി ആ യെസ് യെസ് ആ ആ ശരി